ആ ഇത് ഗ്ലോ ലേഡി ബ്യൂട്ടി പാർലറല്ലേ ആ ഞാൻ മങ്ങാട്ടുകരേന്നാണ് വിളിക്കണത് അപ്പോൾ എനിക്കൊന്ന് പെഡിക്യൂറ് ചെയ്യണമായിരുന്നു ഇവിടെ കസിൻ്റെ കല്ല്യാണമാണ് നാളെ അപ്പോൾ പെഡിക്യൂറിന് എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോൾ എത്ര നേരം എടുക്കും ആ ഓക്കെ ഞാൻ ടൈമൊരു പതിനൊന്ന് മണി ആവുമ്പഴെക്കും വരും എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട് ഓക്കെ ആ അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനൊക്കെയാണ് ആ ആ ആ അധിക നേരം വൈകില്ലല്ലോ ആ അപ്പം ഇതിന് എമൗണ്ടെത്രയാണ് ആ പെഡിക്യൂറ് മാത്രം മതി

ആ കുഴപ്പമില്ല ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ അതറിയാൻ വേണ്ടി വിളിച്ചതാണ്

ആ ഞാൻ കൊണ്ടെരാം ആ താങ്ക് യൂ